കോഴിക്കോട് ജില്ലയില് നമ്മളിപ്പം ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറ്ററുകളാണ് അപ്പം അതിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വിനോദം കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാര് കൂടുതലായിട്ടും ഒന്നിച്ച് പോവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിയറ്ററുകളിലാണ് ഇപ്പോൾ തിയറ്ററുകളില് പുതിയ പുതിയ ഇപ്പോൾ ജയിലറ്ന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ന നല്ല രീതിയില് ആൾക്കാര് കയറിയായിരുന്നു പിന്നെ ആർ ഡി എക്സെന്ന് പറഞ്ഞിട്ട് ഇപ്പം മലയാളം പടം ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നല്ല രീതിയില് ആൾക്കാര് പോവുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയില് ആൾക്കാര് കാണുന്ന ഒരു വിനോദമാണ് സിനിമാന്ന് വേണമെങ്കിൽ പറയാം അപ്പം സിനിമ നല്ല രീതിയില് നമുക്കാൾക്കാരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പല രീതിയിലുള്ള ക കാര്യങ്ങളൊക്കെ ഉണ്ട് അതായതിപ്പം സമൂഹ വിവാഹം അല്ലെങ്കില് ഇപ്പോൾ ഇപ്പോൾ വേറെ ആരുടെയെങ്കിലും വിവാഹവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണെങ്കില് നടത്താവുന്നത് തന്നെയാണ് അപ്പോൾ അത് നല്ല രീതിയില് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് മാളുകളില് മാളുകളിലൊക്കെ നല്ല രീതിയിലുള്ള ആൾക്കാരെ കൊണ്ട് പോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പം മാളുകളില് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല സ്ഥലങ്ങളിലും നമുക്കാളുകളെയൊക്കെ കൊണ്ട് വരാൻ വേണ്ടി സാധിക്കും ബീച്ചില് കൊണ്ടുവരാം ബീച്ചിലിപ്പോൾ നല്ല രീതിയിലുള്ളൊരു ക്രൗഡും കാര്യങ്ങളുമൊക്കെയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് നല്ല രീതിയില് വികാസം പ്രാപിച്ചൊരു സ്ഥലമാണ് അവിടുള്ള കാഴ്ചകള് കാണാൻ വേണ്ടിയിട്ടും അവിടെ നല്ല രീതിയില് ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഓരോ കാര്യങ്ങളൊക്കെ നമ്മക്ക് അറിയാൻ പറ്റുന്നത്